ഹലോ ഇൻഷുറൻസ് കമ്പനിയല്ലേ ഞാനിത് നെടുംകുന്നത്ത് നിന്നാണെ എൻ്റെ ഒരു വാഴ കൃഷി നശിച്ചതിൻ്റെ ഇൻഷുറൻസിൻ്റെ ക്ലെയിമിന് വേണ്ടി ഞാൻ അയച്ചിരുന്നു അപ്പം കുറേ ഡീറ്റൈൽസും കൂടെ വേണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ കത്ത് ലഭിച്ചിരുന്നു എൻ്റെ വിവരങ്ങൾ ഞാൻ ഉടനെ അയച്ച് കൊള്ളാം എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് വിശദമായിട്ട് ഒന്ന് അറിയുകയും ചെയ്യാമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് വിലാസം ഫോൺ നമ്പര് ഇവയൊക്കെ തരണമെന്ന് കാണിച്ചിരുന്നു ടോമി ജോർജ് അത് ഞാൻ വിശദമായിട്ട് വാട്സ്പ്പില് ഞാൻ സന്ദേശം അയച്ചുകൊള്ളാം ഫോൺ നമ്പര് മറ്റ് കാര്യങ്ങൾ എല്ലാം ഇക്കാര്യത്തിൽ നിങ്ങളുടെ പ്രത്യേകമായ താൽപ്പര്യം എടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ സേവനങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ഞാൻ നന്ദി പറയുന്നു എത്രയും പെട്ടെന്ന് ആ ക്ലെയിം സെറ്റില് ചെയ്യുന്നതിലുള്ള നടപടി ക്രമം ത്വരിതപ്പെടുത്തണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു എൻ്റെ ഭാഗത്ത് നിന്ന് അത് വീഴ്ച വരുത്തിയിട്ടുണ്ടങ്കിൽ അത് സദയം ക്ഷമിച്ച് ബാക്കി കാര്യങ്ങൾ ഞാൻ ഉടനെ തന്നെ വാട്സ്പ്പില് നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അയച്ച് തന്നോളം ഇക്കാര്യത്തിൽ വേണ്ടത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അറ്റ് ദ ഏർലിയസ്റ്റ് പോസ്സിബിൾ താങ്ക് യു